ഞാൻ കുറച്ച് നേരം മുന്നില് വിളിച്ചിട്ടുണ്ടായിരുന്നേ ആ ഓട്ടോ വരാൻ വേണ്ടി അപ്പം നിങ്ങളെന്താ വരാത്തത് ഞാൻ കുറെ നേരമായി ഇവിടെ വെയ്റ്റ് ചെയ്യുന്നു അ എത്ര നേരമായി വെയ്റ്റ് ചെയ്യുന്നു നിങ്ങളിപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുക നമ്മള് വിളിക്കുമ്പോൾ വേറൊര് ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് നമ്മള് ചിലപ്പം വളരെ അർജൻറ്റായിട്ട് വിളിച്ചതായിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞങ്ങൾ എന്താണ് ചെയ്യണ്ടത് അങ്ങനെ ആണേൽ നിങ്ങള് നേരത്തേ വരണ്ടേ എനിക്ക് വേറെ ഓട്ടോ പോകണം പിന്നേ അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയണ്ടേ എന്നാൽ ഞാൻ വേറെ ഓട്ടോ നോക്കുവേലെ ഞിങ്ങളിപ്പം അതും എന്താ പറയുക അതും വേണം ഇതും വേണം രണ്ടു തോണിയിലും കാലിട്ട് നിന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് അ നിങ്ങൾക്ക് പറ്റുക ആണെങ്കിൽ വരിക അല്ലെങ്കിൽ ഞങ്ങള് വേറെ ഓട്ടോ ഓഡർ ചെയ്യും വേറെ ഓട്ടോ വിളിക്കും ആ അല്ലെങ്കില് ശരിയാവില്ല നമ്മള് നിൽക്കുന്നതിന് ഒരു പരിധി ഇല്ലെ അങ്ങനെയാണേൽ നിങ്ങള് നേരത്തേ പറയണ്ടേ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് വേറെ ഓട്ടം ഉണ്ടെന്ന് അങ്ങനെയാണേൽ ഞങ്ക്കിപ്പം എത്താനുള്ള സമയായി ഞാന് എംപ്ലോയിമെന്റെ ഓഫീസില് പന്ത്രണ്ട് മണി വരെയേ അവിടെ ഉള്ളു ഇപ്പോൾ പതിനൊന്നരയായി ഞാൻ ഇനി എപ്പം എത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയിമെൻറ്റില് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അ നിങ്ങള് വരാൻ പറ്റു ആണെങ്കിൽ അഞ്ച് മിനുട്ടിനുള്ളിൽ വാ അല്ലെങ്കിൽ ഞാൻ വേറെ ഓട്ടോ വിളിച്ച് പോകും എന്നെ നിങ്ങളിവിടെ വന്നിട്ട് വെറുതെയാകും പിന്നെന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഓക്കേ